ഇന്ത്യയിൽ എപ്പോഴും തണുപ്പുള്ള സമയത്ത് വരുമ്പോഴൊക്കെ നമ്മൾ എല്ലാം ചായ കുടിക്കാറുണ്ട് ചായ എന്ന് പറയുമ്പം ഒരുപാട് തരം ചായകൾ ഉണ്ട് ഈ എ വി ടിയുടെ ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് അല്ലാതെ മറ്റു കമ്പനികളിലെ ഒക്കെ ചായ ഒക്കെ വരുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് പറഞ്ഞാൽ പപ്പയ്ക്ക് ഗ്രീൻ ടീ ആണെങ്കിൽ മമ്മിക്ക് എ വി ടിയുടെ അങ്ങനെ ഇഷ്ടമുള്ള ചായ ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ കുടിക്കാറുള്ളത് ഏതൊരു തണുപ്പത്തും ആ തണുപ്പ് ഒന്ന് മാറാനായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരു സുഖമായിട്ടിരിക്കാനാകുമ്പം ഒരു ചായ നല്ലതാണ് അതുപോലെ തന്നെ ചായ മസാല ചായ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ചായകൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ ഇപ്പം കണ്ട് വരുന്നതാണ് ഈ ചെറിയ മൺകുടത്തിൻറെ അകത്ത് മണൽൻറെ അകത്തൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഓരോരോ ചായകൾ നേരത്തത്തെ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഒരുപാട് ചായകൾ ഇറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്നാർ ഇടുക്കിയിലോട്ട് ഒക്കെ വരുമ്പം തന്നെയായിട്ട് ഒരുപാട് തരം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് തരം ഐറ്റംസ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചായകളായിട്ട് പിന്നെ നല്ലൊരു തണുപ്പിൻ്റെ സമയത്ത് ചൂടോട് കൂടി ഒരു ചായയും ഒരു ചെറു കടിയും കൂടി കടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും ആ സുഖത്തിൽ പിന്നെ നമുക്ക് ചെയ്യുന്ന പണി എന്ത് ഇതാണെങ്കിലും നമുക്ക് ഒരു ഉന്മേഷത്തോടെ ചെയ്യാൻ കിട്ടും എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആണെങ്കിലും ചായ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ചായ കുടിച്ചാണ് ഒരു ദിവസം ഒരു വീട്ടിൽ എല്ലാവരും ആരംഭിക്കുന്നത് അപ്പം വീട്ടിലുള്ളവർക്ക് പല രീതിയാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ഏക മാർഗ്ഗം ചായയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് പാലും ചായ അടിച്ച് പതച്ച് കുടിക്കുന്നവരുണ്ട് അടിക്കാതെ കുടിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ചായ എന്ന് ചായയിലത്തെ ഒത്തിരി ഗുണങ്ങൾ ഒക്കെയുണ്ട് തേയിലപ്പൊടിക്കാണെങ്കിലും പല കമ്പനി ഒക്കെ ആണെങ്കിലും അപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചായ ആണ് ഏറ്റവും നല്ലത് സുഭലമായിട്ടുള്ളത് അപ്പം കടകളിലൊക്കെ പോയി കുടിച്ചാൽ നമുക്ക് അതിൻറെ അകത്തുനിന്ന് കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് കൂടാണ്ടവർ ചെയ്ത് തരുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ ച പാൽ ഒഴിച്ച് തിളപ്പിച്ചൊക്കെ ചായ കുടിക്കാറുണ്ട്